ഒരു പ്രദേശത്ത് നമ്മൾ വ്യാപാരം നടത്തുമ്പോൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയത്തിൽ നമ്മൾ മലയാള ഭാഷ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം സാധാരണ മിക്ക ആൾക്കാർക്കും പറയാനായിട്ട് മലയാള ഭാഷയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കച്ചവടക്കാരൊക്കെ ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പം ഇന്നതിന് ഇത്ര വില അപ്പം അവർ ചോദിക്കും ഏ ഇത്ര വിലക്കല്ല ഇന്ന വിലയ്ക്ക് കൂട്ടി ഇടുക്കാം കുറച്ചെടുക്കാം എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മൾക്ക് അവർ പറയുന്നത് മനസ്സിലാവാനും

അവരും നമ്മളോട് ഇപ്പം മലയാളത്തിൽ സംസാരിക്കാനും പഠിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ മാതൃഭാഷ തന്നെയാണ് മിക്കതായിട്ടും നമ്മൾ ഉപയോഗിക്കാറുള്ളത് മലയാളം തന്നെ അപ്പം നമ്മൾ സാധനങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ അവർ നമ്മൾക്ക് ഇപ്പം വേറെ ഭാഷയാണ് അവർ പറയുന്നതുണ്ടെങ്കിൽ നമുക്ക് അത് അറിയില്ലെങ്കിൽ നമുക്ക് ആ കച്ചവടത്തിൽ നഷ്ടമുണ്ടാവും കാരണം അവർ പറയുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പം നമ്മൾ എപ്പോഴും കച്ചവടം ചെയ്യുമ്പോൾ നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാവും വേണം അവർ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാവണം അതിന് മലയാളം തന്നെയാണ് നല്ലത്